ഞാനൊരു ആർട്സ് എക്സിബിഷന് പോയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് അതായത് ഒറ്റപ്പാലമാണെൻറ്റെ വീട് ഒറ്റപ്പാലം ടൗണിലൊരു ആർട്സ് എക്സിബിഷന് ഉണ്ടായിട്ടുണ്ട് പിന്നെ തൃശ്ശൂര് ടൗൺ തൃശ്ശൂരിലും ഒര് എക്സിബിഷന് ഉണ്ടായിട്ടുണ്ട് പിന്നോര് എറണാകുളത്തും ഒര് എക്സിബിഷന് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒക്കെ പോയിട്ടുള്ളപ്പോൾ നല്ല രസമാണ് അവിടെ കുറെ പേരുടെ പൈൻറ്റിങ്സായാലും കാണാം പലവരുടേയും അവര്ൻറ്റെ കഴിവുകള് തെളിയിച്ചും കൊണ്ട് അവിടെ പലതും വെച്ചിട്ടുണ്ടാകും അതൊക്കെ കാണാൻ നല്ല രസമാണ് അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നതായത് കൊണ്ട് അതിനൊക്കെ നല്ല പൈസ ആയിരിക്കും ചിലത് വിൽക്കാൻ വെച്ചിട്ട് ഉണ്ടാകും ചിലത് കാണാൻ മാത്രമായിരിക്കും അതൊന്നും തൊടാൻ പോലും പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു കഴിഞ്ഞാൽ അതൊക്കെ അത്രയും സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സാധങ്ങളാണ് അപ്പം അതൊന്നും തൊടാൻ പോലും പാടില്ല എൻ്റ അമ്മയുടെ കൂടെയാണ് ഞാൻ പോയത് എൻ്റ അമ്മയും ഈ പറഞ്ഞത് പോലെ ഒരു കലാകാരിയാണ് അമ്മ വരയ്ക്കും അപ്പോൾ അമ്മയുടെ കൂടെ പോയപ്പോൾ അമ്മയ്ക്കും എനിക്കും വളരെ ഇഷ്ട്ടമായി എനിക്ക് മനസ്സിലാവത്ത കാര്യങ്ങളൊക്കെ അമ്മ എനിക്ക് പറഞ്ഞുതന്നു അങ്ങനെ എനിക്കൊരു പുതിയൊരു അനുഭവമായി അത് എനിക്ക് ഞാൻ എക്സ്പോയിൽ ഇങ്ങനെ പൊ അത്യാവശ്യം എക്സ്പോയില് പോയിട്ടുണ്ട് എൻ്റ അമ്മ എന്നെങ്ങനെ മാക്സിമം അവിടേയും ഇവിടേയും ഇങ്ങനത്തെ എക്സ്പോകൾ ഉണ്ടാകുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാൻ നോക്കാറുണ്ട് പിന്നെ എനിക്ക് അതുകൊണ്ട് ഏതിലെങ്കിലും പോകണം അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇതു വരേയ്ക്കും പോയിട്ടുള്ളതൊക്കെ മതി എനിക്ക് കൂടുതല് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും എനിക്ക് അവിടെ പോയിട്ടെൻറ്റനുഭവം നല്ല രസമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അവിടെ പോയിട്ട്